ഇരുപത്തി അഞ്ച് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പതിനേഴ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്പത് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ആറ് പതിനേഴ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത്